ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ എസ്പീരിയൻസ് കിട്ടുക അത് തന്നെ നമ്മള് ഉയർന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് ഒന്നുംകൂടി ഇങ്ങനെ നല്ലത് പോലെ കളിക്കാൻ കഴിയുമെന്ന് ഒക്കെ നമുക്ക് മനസ്സിലാവും ഗ്രാമത്തിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതെങ്ങനെയാണ് കളിക്കേണ്ടത് അതെങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ നമ്മുക്ക് നല്ലത് പോലെ തിരിച്ചറിഞ്ഞ് ഒന്നുംകൂടി എസ്പീരിയൻസാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസമാവും ഏത് സാഹചര്യം നമുക്ക് തരണം ചെയ്തു പോവാൻ നമുക്ക് ഇതിലൂടെ കഴിയും നമ്മൾ പുതുതായിട്ട് കാണലല്ലോ നമ്മള് ആദ്യ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ കഴിയും ഗ്രാമപ്രദേശത്ത് കളിക്കുന്നത് തന്നെ ഇപ്പം നമ്മൾ ഫുട്ബോള് വച്ച് നോക്കുവാണെങ്കിൽ ഗ്രാമപ്രദേശത്ത് നമ്മൾ കുറെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഉയർന്ന സ്ഥലത്തു പോകുമ്പോൾ നമുക്കതൊന്നും വലിയ പ്രശ്നമല്ലാതെ തോന്നും ഒര് എസ്പീരിയൻസ് നമുക്ക് അധികം കി കിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് നല്ലപോലെ കളിക്കാൻ കഴിയും